അന്യായമായി പക്ഷപാതപരമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകളും പ്രസിദ്ധീകരിക്കപ്പെട്ട വ്യാജ വാർത്തകളും കണ്ടിട്ടുണ്ട് പക്ഷെ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്തു പറയാനായിട്ട് അറിയത്തില്ല മാ ച പാനലിനു ചാനലൊക്കെ കാണുമ്പോൾ ചില വർത്തകളൊക്കെ ഓരോ പ്തിനെക്കുറിച്ചും പിന്നെ ഓരോ പാർട്ടി ബേസനുസരിച്ച് അതുപോലെ മതപരമായിട്ടും ബേസ് ചെയ്ത് ഇപ്പം പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നത്ര ശരിയായ കാര്യമല്ല അവരുടെ നേരമായ കാര്യത്തിലൂടെ സത്യം സത്യമായിട്ടു തന്നെ പറയുക അല്ലാതെ ഒരാൾക്ക് ഇപ്പം ഏതു ചാനൽ നോക്കിയാലും പാർട്ടികൾ ഇവർ രണ്ടു പേരും അങ്ങോ വയാ അങ്ങോട്ടും ഇഞ്ഞോട്ടും കുറ്റം പറയുമല്ലാതെ ഒരു ഒത്തു തീർപ്പാകാൻ ആകുന്നില്ല പക്ഷെ അതൊക്കെ തെറ്റായ ഇഷ് എത്രയോ തെറ്റായ വർത്തകളൊക്കെ ഉണ്ട് ഒരുപാട് തെറ്റായ വർത്തകളൊക്കെ ചാനലിനകത്തു കേട്ടിട്ടുണ്ട് അതു പിന്നെ അത് ആൾക്കാർക്കു ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അവരുടെ ആ മനസ്സിൻ്റെ ഇതുപോലെ മറ്റുള്ളവർ പറയുന്നത് ശരിയാകുന്നു അവർ പോസിറ്റീവായിട്ടും ആര് നെഗറ്റീവായിട്ടും മേണെ ആളുകൾക്കു തിരഞ്ഞെടുക്കാൻ സാധിക്കും പക്ഷെ എനിക്കത് എൻ്റെ ഏതാണിപ്പം വലിയ ഓർമ്മയൊന്നുമില്ല പക്ഷെ എൻ്റെ അന്യായമായിട്ട് അതു പോലെ പക്ഷം പിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് വാർത്തയുണ്ട് ചാനലുണ്ട് അതുപോലെ ഏതെടുത്താലും ഏതു ചാനലിലും അങ്ങനെ തന്നെയാണ് ഏതിനേക്കുറിച്ചു പറഞ്ഞാലും അവരവർക്ക് താത്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും പക്ഷെ അത് അത്ര ശരിയായ കാര്യമല്ല സത്യമായിട്ടുള്ളത് സത്യമായിട്ടും തെറ്റായിട്ടുള്ളത് തെറ്റായിട്ടു തന്നെ പറയണം അതു മറ്റുള്ള ആളുകൾക്കതൊരു പ്രയോജനമായിട്ടു മാതിരി ആയിരിക്കണം ഇപ്പം ഒരു കൺടററിയായ ഓരോത്തരെ കാണുമ്പോഴും അതിന് അവർക്കു താത്പര്യം ഇരിക്കത്തൊക്കെ വണ്ണമുള്ളതായിരിക്കും തെറ്റാണെങ്കിൽ മാളുകൾക്ക് കാണാനായിട്ട് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുകയില്ല അപ്പം ഇത് മാധ്യമങ്ങൾ ചെയ്യുന്നവർ അവർ ന നല്ല രീതിയിൽത്തന്നെ ചെയ്യാൻ ചെ ചെയ്യണം എങ്കിലേ ആളുകൾ കൂടുതലായിട്ട് കാണാൻ കാണുകയുള്ളു ഇതുപോലെ ഏതിൻ്റെ ഏതെടുത്താലും പരസ്യമായാലും പിന്നല്ലാതെ കാര്യങ്ങളാന്നേലും ഒരു ഈ കൂടുതലായിട്ടും പാർട്ടികളുടെ ഇതനുസരിച്ചാണ് ആ പാർട്ടി അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ് അതു പോലെ മതത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും സൗന്ദര്യ വസ്തുക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഏതായാണെങ്കിലും അതു സത്യമായിട്ടു തന്നെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക അന്യായമായിട്ടു പ്രസിദ്ധീകരിക്കാൻ പ്രസിദ്ധീകരിക്കരുത് ഒരുപാട് കാര്യങ്ങളൊക്കെ തെറ്റായിട്ടും പറയുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് കുറേ ചാനലുപയോഗിക്കുന്നുണ്ട് പിന്നെ ഏത് ഒരു ചെറിയൊരു നിസ്സാര കാര്യവും ആണെങ്കിൽ തന്നെയും വർത്തകളെത്ര പർവ്വതീകരിച്ചാണ് കാണിക്കുന്നത് അതും പക്ഷെ കുടുംബക്കാർ കേൾക്കുമെന്നും അത് അവരുടെ ആളുകൾ കേൾക്കുമെന്നുള്ള ഒരു ചിന്തയില്ലാതെ എന്തും തുറന്നടിക്കുന്ന ഒരു ചാനലുകളൊക്കെ ആണ്ടിപ്പാ കാണാൻ സാധിക്കുന്നത് അതപ്പം ശരിയായ രീതിയല്ല അങ്ങനെ നല്ല രീതിയിൽത്തന്നെ വർത്തകളൊക്കെ കൈകാര്യം ചെയ്യുക പല രീതിയിലും വാർത്തകൾ കേൾക്കാനുള്ള കേൾക്കാനും കാണാനും ഒക്കെയുള്ള സൗകര്യം ഉള്ളതു കൊണ്ട് ഒരു ചാനലിൽ അങ്ങനെ പറയുന്നു ഒരു ചാനൽ ഇങ്ങനെ പറഞ്ഞു വ്യത്യസ്തമായിട്ടു തന്നെയാണ് സംസാരിക്കുന്ന അതു കൊണ്ട് ആ രീതിയിൽ പോകാതെ ഉള്ളത് കാര്യം ഉള്ളതായിട്ടു തന്നെ പറയുക നമ്മൾ പിന്നെ തിരഞ്ഞെടുക്കേണ്ടിയ കാര്യങ്ങൾ ൻ ഇപ്പം എൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക അല്ലാത്ത കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക